ഹലോ ആ ചേട്ടാ ആ ചേട്ടനിറങ്ങിയോ ഞാനാണ് ഞാൻ നേരത്തേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ക്യാബ് ആ അതേ അതേ ആ റെയിൽവേ സ്റ്റേഷൻറ്റെ അവിടേ വരാൻ പറഞ്ഞത് ആ ചേട്ടാ ഞാനേ ദേ ഇവിടേ നമ്മുടെ കെ എസ് ആർ ടി സി ൻറ്റെ സ്റ്റാൻഡിൻറ്റെ അവിടേ എത്തിയിട്ടുണ്ടായിരുന്നേ ആ അല്ലാ ഇങ്ങോട്ട് വന്നാൽ മതി ആ ഹാ ഹാ ഇല്ല കുഴപ്പമില്ല ചേട്ടൻ ഇങ്ങോട്ട് വന്നോളൂ ഞാൻ ഇവിടെ ഉണ്ടാകും ആ എത്താറാകുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി ഞാന് ഇവിടേ ഒരു ഹോട്ടലിൽ ഉണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കുന്നതാണ് ആ ഞാന് റെയിൽവേ സ്റ്റേഷൻറ്റെ അങ്ങോട്ട് നിൽക്കാമെന്ന് ആയിരുന്നല്ലോ പറഞ്ഞത് അപ്പോൾ ഇവിടേ എത്തി കഴിഞ്ഞപ്പോൾ ഫാമിലിലുള്ളവര് ഉണ്ടായിരുന്നു അപ്പോൾ അവര് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാന് ഇവിടേ കയറിയതാണേ ആഹാ ആ ചേട്ടൻ എന്നാൽ ഇങ്ങോട്ട് വന്നോളൂ നമുക്ക് ഇവിടുന്ന് എന്നാൽ പോകാം ഇനി വെറുതേ അവിടെ വരെ പോകണ്ടല്ലോ

ആ ഒക്കേ ഏട്ടാ എന്നാൽ ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ ആയിക്കോട്ടെ എന്നാൽ ഓക്കേ വരുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി ആ ശരി ഏട്ടാ ഓക്കേ എന്നാൽ